ഗതാഗതങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ബന്ധിപ്പിക്കുന്നതാണ് ഗതാഗതങ്ങള് അപ്പോൾ ഈ ഗതാഗത വ്യവസായങ്ങളും സാങ്കേതിക വിദ്യേനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഇപ്പം ഇപ്പോൾ നോക്കാണ് വെച്ചാൽ ഇപ്പോൾ ബസ്സുകളും മറ്റ് ട്രെയിനുകളൊക്കെ ആയപ്പോൾ എല്ലാ സ്ഥലങ്ങലോട്ടും സേവനങ്ങള് ഇപ്പോൾ എല്ലാ സ്ഥലത്തോട്ടും ബസ് റൂട്ടുകളും ട്രെയിൻ സർവീസുകളൊക്കെയുണ്ട് അപ്പോൾ നമ്മളെ ഈ ഒരു നമുക്ക് എന്തെങ്കിലും ഏ ഏത് സ്ഥലം അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് പോകുവാണെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും പിന്നെ ട്രെയിനുകളിൽ എങ്ങനെയാണ് റേറ്റും മറ്റുകാര്യങ്ങളും അല്ലെങ്കിൽ ട്രെയിനുകളിൽ എത്ര സീറ്റ് ഒഴിവുണ്ട് അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ട്രിപ്പ് പോകണം എന്ന് വെച്ചാൽ നമുക്ക് ട്രെയിനില് ടിക്കറ്റ് ബുക്ക് ചെയ്യാം എങ്ങനെയാണ് എത്ര സീറ്റുകളും മറ്റു കാര്യങ്ങള്ണ്ട് എന്നൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് നോക്കാൻ സാധിക്കും അങ്ങനെ ഗതാഗത വ്യവസായത്തെ ഇപ്പോൾ സാങ്കേതിക വിദ്യ മൂലം ഒരുപാട് സഹായിച്ചിട്ടുണ്ട് നമുക്കെല്ലാം ഓൺലൈനായിട്ട് തന്നെ ഇപ്പോൾ ബസ്സിലെ കാര്യങ്ങളും എല്ലാം നമുക്ക് നോക്കുകയാണെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് എല്ലാം നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്